ആദ്യമൊക്കെ ഒരു വിഭവമുണ്ടാക്കാൻ നേരത്ത് ഞാൻ ആദ്യം അമ്മയോടാണ് ചോദിക്കുക എന്താണ് ഇതിനുള്ള പാചക കുറിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇപ്പം സ്വന്തമായി ഒരു വിഭവം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും യൂട്യൂബിനെ ആണ് ആശ്രയിക്കാറുള്ളത് അതിൽത്തന്നെ പ്രശസ്തരായ മലയാളി പാചകക്കാരുടെ പാചകം ആദ്യം തന്നെ ഒന്ന് കാണും അല്ലെങ്കിൽ ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും രേഖപ്പെടുത്തിയ ചില കുറിപ്പടികളുണ്ടാവും ചില ദൃശ്യങ്ങളും ഉണ്ടാവും അതിൽ കൂടുതലുള്ളത് ഏതാണെന്നുള്ളത് ഒന്ന് നോക്കും ആദ്യം അവരുടെ അതിനെപ്പറ്റി അതിൻ്റെ താഴെ അതിൻ്റെ അനുഭവങ്ങൾ എഴുതിയ ആൾക്കാരുണ്ടാവും ആ അനുഭവങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കും അതൊക്കെ നോക്കിയാണ് ഞാൻ യൂട്യൂബിൽ പാചക കുറിപ്പുകൾ തിരഞ്ഞെടുക്കുന്നത് ഉദാഹരണത്തിന് അവസാനമായി ഞാൻ പരീക്ഷിച്ച വിഭവം പനീർ ബട്ടർ മസാലയായിരുന്നു തീർത്തും പുതിയ രീതിയിലുള്ള ഒരു വിഭവമായതുകൊണ്ട് ഞാൻ ഒരുപാട് ദൃശ്യങ്ങൾ കണ്ടു നോക്കി അതിനിൽനിന്നും ടെലിവിഷനിൽ പരിപാടി അവതരിപ്പിച്ച ലക്ഷ്മി നായർ അവർ തയ്യാറാക്കിയ ഒരു പാചക കൂട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത് അവർ പറഞ്ഞു തന്ന കറിക്കൂട്ടുകൾ എല്ലാം വാങ്ങി അതേ രീതിയിൽ തന്നെ തയ്യാറാക്കി വെച്ചു എന്തിരുന്നാലും ആ കറി അത്രതന്നെ മികച്ചതും സ്വാദിഷ്ടവുമായിരുന്നു അതോടെ തുടർന്നും ഞാൻ ഈ രീതിയിലുള്ള പാചക കുറിപ്പുകൾ സ്വീകരിക്കും